മൃഗങ്ങൾക്ക് മേയാൻ പച്ചപ്പുള്ള സ്ഥലങ്ങളും ഇഷ്ടം പോലെ സൗകര്യം പോലെ ഉണ്ട് മൃഗങ്ങൾക്ക് മേയാൻ പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ ലഭ്യമാണ് പക്ഷേ പഴയ രീതിയിലുള്ള പിന്നെ പച്ചപ്പുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ ലഭ്യമല്ല എന്നാണെന്നാൽ ഈ വേസ്റ്റും അതും ഇതും എല്ലാം പ്ലാസ്റ്റിക്കുകളും എല്ലാം പിന്നെ വലിച്ചെറിയുന്ന സ്ഥലങ്ങളിലൂടെ മൃഗങ്ങൾ നടന്ന് അത് എന്തുവാണ് തിന്നുന്നതും കഴിക്കുന്നതൊന്നും നോക്കാതെ എല്ലാം കഴി വായിൽ കഴിച്ച് അതൊക്കെ തിന്നും കുടിച്ചും ഇങ്ങനെ നടന്ന് കഴിയുമ്പോൾ അതിനെ അതിൻ്റെ കഴിച്ചേ അതിനെ പിന്നെ അതിൻ്റെ ആഹാരസാധനങ്ങൾ അകത്ത് ചെന്ന് കഴിയുമ്പോൾ പിന്നെ അതിന് ശരിയായ രീതിയിലുള്ള ശരിയായ രീതിയിൽ അതിന് വയറിനസു ദഹനം നടക്കാതെ അതിന് അതിൻ്റെ വയറ്റിലെ അസുഖങ്ങളും അതും ഇതൊക്കെ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് പച്ചപ്പുല്ല് ലഭ്യമായ സ്ഥലങ്ങളിലാണ് ഈ വേസ്റ്റുകൾ എല്ലാം എറിഞ്ഞ് എറിഞ്ഞ് കളയുന്നതിപ്പോൾ എല്ലാ ജനങ്ങളും അതായത് നമ്മൾ ആഹാര സാധനത്തിൻ്റെ വേസ്റ്റും അതുപോലെ എല്ലാ റബ റബ പ്ലാസ്റ്റിക്ക് സാധനങ്ങളും റബ്ബർ റബ്ബർ ഐറ്റംസ് എന്തെല്ലാമാണോ അതെല്ലാം മനുഷ്യൻ വലിച്ച് ഒരു അലക്ഷ്യമായിട്ട് കളയുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങൾ ആണ് ഈ പുല്ലിൻ്റെ പിന്നെ അതുകൊണ്ട് മൃഗങ്ങളെ നമുക്ക് വിട്ട് തീറ്റാനോ അങ്ങനെയൊന്നും നമുക്കിപ്പോൾ പഴയ അത്രയും സ് സൗകര്യങ്ങളില്ല പിന്നെ വീടുകളിൽ കെട്ടി സംരക്ഷിക്കുക എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വെള്ളം അതിന് കൊടുക്കുന്ന വെള്ളവും കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം പണ്ടൊക്കെ ആണെങ്കിൽ പിണ്ണാക്കും പൂളും പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുവായിരുന്നു ഇപ്പോൾ പല പല പിന്നെ ഓരോ സാദനങ്ങളിലൂടെയൊക്കെ എന്തെല്ലാം വേസ്റ്റുകളാണ് അതിൻ്റെ ഉള്ളിൽ കയറുന്നത് എന്നുള്ളത് പറയാൻ പറ്റത്തില്ല പിന്നെ അഴിച്ച് വിടാനൊന്നും പണ്ടത്തെ പോലത്തെ ആർക്കും സൗകര്യങ്ങളില്ല എല്ലാം തൊട്ടടുത്തുള്ള വീടുകളും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളിൽ ഇപ്പം ജീവിക്കുന്നു ഒന്നാമത് പണ്ടൊക്കെയാണെങ്കിൽ ഒരു പശുവിനെ രാവിലെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൈകിട്ട് നമ്മൾ വരുന്ന സമയം വരെയും നമുക്ക് നോക്കേണ്ടി ആവശ്യങ്ങളൊന്നും ഇല്ല ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് അങ്ങനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ ഒന്നാമതേ ഒരു വഴി സൈഡുകളിൽ പോലും ഭയങ്കര തിക്കും തിരക്കും ആയ വാഹനങ്ങൾ ഓടി കൊണ്ടിരിക്കുന്ന അവസ്ഥ ഒന്ന് പിന്നെ അതുപോലെ ചെറിയ രീതിയിലാണെങ്കിലും ഓരോരോ ചെറിയ കൃഷികളുമൊക്കെ മനുഷ്യരുടെ അടുക്കയിൽ നിന്നാണെങ്കിലും നമുക്കങ്ങനെ വിട്ട് ശീ പിന്നെ തീറ്റാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല